ഇപ്പോൾ കോഴിക്കോട് ജില്ലയില് പല ഉപജീവന മാർഗ്ഗങ്ങൾ കൂടുലായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ വ്യവസായമാണ് കുടുതലായിട്ടുള്ളത് അപ്പോൾ കുടുതലായിട്ടും വ്യവസായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ചെറിയ പിള്ളേര് വരെ അതായത് ഓരോ ഷോപ്പുകളിൽ നിൽക്കുക അങ്ങനെത്തെ കാര്യങ്ങളാണ് കുടുതലായിട്ടും അവര് ഉപജീവന മാർഗ്ഗമായിട്ട് സ്വീകരിക്കുന്നത് ഇപ്പോൾ കുറെ കുട്ടികള് പണിയെടുക്കുക അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ മിഠായിതെരുവ് എന്ന് പറഞ്ഞ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞുകഴിഞ്ഞാൽ കുടുതലും ആൾക്കാര് വന്നുപോവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവര് കുടുതലായിട്ടും ഈ ഡ്രസ്സ് വിലക്കിഴിവിലൊക്കെ വാങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കുടുതലായിട്ടും സാധരണ ആൾക്കാരാണ് ഉള്ളത് അവർക്ക് എന്താ പറയുക കുറച്ച് വിലക്കിഴിവിലൊക്കെ കിട്ടുക പറഞ്ഞുകഴിഞ്ഞാല് അത് മിഠായി തെരുവ് ആ ഭാഗങ്ങളിലാണ് കിട്ടുക അപ്പം അവിടെന്നെല്ലാരും അവര് ബൾക്കായിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാറുള്ളത് പിന്നെ കുടുതലായിട്ടും സ്വയംതൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ കൃഷി അങ്ങനെത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ജോലിയൊക്കെയാണെങ്കിൽ എല്ലാവരും ഇഷ്ട്ടപ്പെട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് എന്നുവേണമെങ്കിൽ പറയാം